നമ്മുടെ സംസ്ഥാനത്തിന് സംസ്കാരം രൂപപ്പെടുത്തിയവരെന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ആൾക്കാരുടെ പ്രയത്നം ഉണ്ട് പണ്ടുതൊട്ടേ നമുക്കറിയാം ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാം നമ്മുടെ കേരളം എന്ന നമ്മുടെ സംസ്ഥാനത്തെ ഈ ഒരു ഈ ഒരു ഇന്നത്തെ കാണുന്ന രൂപത്തിലാക്കിയത് ഒരുപാട് പേരുടെ പ്രയത്നം കൊണ്ടാണ് നമുക്കറിയാം സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആയ അയ്യങ്കാളി ശ്രീനാരായണഗുണു ശ്രീനാരായണഗുരു ചട്ടമ്പിസ്വാമികൾ ഭാഗ്ഭടാനന്ദൻ തുടങ്ങിയവരുടെ ഒട്ടേറെ അവരുടെ ആശയകളും ആശയങ്ങളും ചിന്തകളും അവരുടെ പോരാട്ടങ്ങളും ആണ് ഇന്ന് നിലനിൽക്കുന്ന നമ്മുടെ കേരളമെന്ന ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഉണ്ടായത് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിന് സംഭവിക്കാൻ ഉണ്ട് ജാതിപരമായും അതുപോലെ മതപരമായും ഒരുപാട് വേർതിരിവുകൾ ഉള്ള ഒരു സമൂഹമാണ് അതിനെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ തന്നെ ഉദാഹരണമാണ് അങ്ങനെ ഒ ഒരുപാട് മാറ്റങ്ങൾക്ക് കാലങ്ങൾക്ക് അനുസരിച്ച് ഇനിയും ഒരുപാട് കേരളത്തിന് മാറ്റം സംഭവിക്കേണ്ടതുണ്ട്